പുറത്തുള്ള പാർട്ടികൾ എന്ന് വച്ചാല് വലിയ ആഘോഷങ്ങളില് ക്ലബ് ഡാൻസും മദ്യപാനം പോലുള്ള ഇത് കഴിച്ച് എല്ലാവരും കൂടി ക്ലബ് ഡാൻസ് വിനോദങ്ങള് പങ്ക് ചേരുവാനും ഏറ്റവും കൂടുതൽ പുറം രാജ്യങ്ങളിലെല്ലാം ഉള്ളത് നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇത് വരെ ഉണ്ടായിട്ടില്ല എല്ലാവരും മദ്യപിക്കുമെന്നല്ലാണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാരും ചെയ്യുന്നില്ല പിന്നെ അതെല്ലാം പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തികളാണ് മദ്യപിച്ചിട്ട് ഇങ്ങനെ പിന്നെ ഒരൊ തരം ഡാൻസുകളും പാർട്ടികൾ പാർട്ടി നടത്തുന്ന സ്ഥലത്ത് ഭയങ്കരമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് പുറത്താണ് ഇവിടെയൊന്നും അങ്ങനെയില്ല നിങ്ങളെ നാട്ടിലൊക്കെ നല്ല മനുഷ്യന്മാരെ നല്ല അങ്ങനെയുള്ള വെള്ളം കുടിച്ചിട്ടുള്ള മദ്യപിച്ചിട്ടുള്ള കളിയൊന്നും ആരും കളിക്കുന്നില്ല എല്ലാവർക്കും അത്യാവശ്യം കോളനികളിലുള്ള ആൾക്കാരൊക്കെ മദ്യപിക്കുന്നതല്ലാണ്ട് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അങ്ങനെയുള്ള പ്രവർത്തികളൊന്നും ആരും ചെയ്യുന്നില്ല എന്നാണ് പറയാനുള്ളത്